നീന്തൽ പരിശീലനം ആ അത് നമുക്കിപ്പോൾ പല രീതിയിലും ചെയ്യാം പാരമ്പര്യമായിട്ട് നമ്മൾ സാധാരണ എങ്ങനെയാണ് ആൾക്കാർ ചെയ്യുക എങ്ങനെ ഇപ്പോൾ കുറേ എന്താ പറയുക കുറേ പരിശീലകരുണ്ട് അപ്പോൾ അവർ അവർ പുതിയ പുതിയ എന്തെങ്കിലും ടെക്നോളജി വെച്ചിട്ട് ഒക്കെ പഠിപ്പിച്ച് കൊടുക്കും പണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ടയർ ട്യൂബ് അങ്ങനത്തെ സാധനങ്ങൾ ഒക്കെ വെച്ചിട്ട് പിന്നെ ചില ആൾക്കാർ ബോട്ടിൽ ഒക്കെ അതായത് നമ്മൾ ബോട്ടിൽ ബോട്ടിൽ ഒക്കെ കുറേ പ്ലാസ്റ്റിക്ക് ബോട്ടിൽ കുറേ കൂട്ടിക്കെട്ടി ഒരു ചെറിയ ഫ്ലോട്ടിങ്ങ് ഇതുപോലെ ആക്കിയിട്ട് കൈയും സാധാ കാണിക്കുന്ന പോലെ കൈയും കാലും ഇട്ട് ഇങ്ങനെ ചെയ്യുക പക്ഷെ അത് എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്രത്തോളം എഫക്റ്റീവ് അല്ല കാരണം ബോട്ടിൽ നമുക്ക് വെള്ളത്തിൻ്റെ ലെവൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതായത് നമ്മുടെ ബോഡിക്ക് അനുസരിച്ചുള്ള മൊത്തം ബോഡിക്ക് ഏകദേശം വരണ രീതിയിൽ ചെയ്യണം എന്ന് പറയുന്നത് നമ്മുടെ വെള്ളത്തിലേക്ക് അങ്ങനെ താണു പോകൂല്ല അപ്പോൾ നമ്മൾ കൂടുതൽ എഫേർട്ട് എടുത്ത് വെള്ളത്തിൽ ഒരുപാട് പ്രഷർ ഇട്ട് അടിക്കേണ്ടി വരും പിന്നെ എന്താ പറയുക ഇപ്പോൾ വേറെ നമുക്ക് ഇപ്പോൾ എക്സൈസ് ചെയ്യുക ഇപ്പോൾ യോഗ ഒരു നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള എന്താ പറയുക നമുക്ക് ഈ നീന്താൻ വേണ്ടീട്ട് യോഗ നല്ലൊരു എഫക്റ്റീവ് ഇതാണ് യോഗയിൽ നമുക്ക് നമ്മുടെ ശ്വാസഗതി കണ്ട്രോൾ ചെയ്യാനും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ നേരം വെള്ളത്തിൽ ശ്വാസം പിടിച്ച് കിടക്കാനും അഥവാ മുങ്ങിപ്പോയി കഴിഞ്ഞാലും കുറച്ച് നേരം ശ്വാസം പിടിച്ച് കിടന്നാൽ വലിയ ബുദ്ധിമുട്ട് ഒന്നും ഇല്ലാണ്ട് കുറച്ച് നേരം കഴിഞ്ഞാലും നമുക്ക് പുറത്ത് വന്നുകഴിഞ്ഞാൽ അത്യാവിശ്യം രക്ഷപ്പെടാൻ അതായത് മരിച്ച് പോകാണ്ട് രക്ഷപ്പെടാൻ ഉളള കഴിവും കാര്യങ്ങളും പിന്നെ അതില് ഓരോ മുറകള് അല്ലെങ്കിൽ ഓരോ ടൈപ്പ് യോഗ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ജോയ്ന്റ്സ് അതായത് കൈയിൻ്റെ ജോയ്ൻസ് ആയാലും കാലിൻ്റെ ജോയ്ൻസ് ആയാലും എല്ലാ ജോയ്ൻസൊക്കെ ഒന്ന് ഫ്രീ ആകും അപ്പോൾ അതാ നമുക്ക് നീന്തുമ്പോൾ കൂടുതൽ നേരം നീന്തിയാലെ നമുക്ക് അത്രയും എഫേർട്ട് വരൂ അല്ലെങ്കിൽ വേദനയോ കാര്യങ്ങളോ വരാണ്ട് നമുക്ക് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റും നീന്താൻ പറ്റും